ഹലോ മാം ഗുഡ് മോണിങ് ഞാൻ എന്റെ പാസ്പോട്ടിൻ്റെ അപ്ഡേഷൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു അപ്പം എനിക്ക് യു കെയിലേക്കൊരു ജോബ് ശരിയായിട്ടുണ്ട് അപ്പം ഈ മാസം അവസാനത്തേക്കെനിക്ക് കയറിപ്പോവണം ഇന്നായിരുന്നു എനിക്കതിൻ്റെ കൺഫൊമേഷൻ മെയിലൊക്കെ വന്നത് അപ്പം അതിനകത്ത് പാസ്പ്പോട്ടിൻ്റെ കാര്യമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പാസ്പോർട്ട് ഞാൻ നോക്കിയപ്പം അത് ആണെങ്കിൽ എക്സ്പയറി ആയിട്ടുണ്ട് പിന്നെ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അതിനകത്ത് എൻ്റെ വയസ്സ് അഡ്രസ്സ് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷില്ല ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അതാണ് ഇത് ചെയ്യാനായിട്ട് വൈകിയത് അപ്പം എനിക്കിത് അപ്ഡേറ്റ് ചെയ്തിട്ട് കിട്ടണം ഒന്ന് ചെയ്ത് തരാമോ

എത്ര സമയമെടുക്കും ഇതൊന്ന് ചെയ്യാനായിട്ട് അ അത്രയും സമയമെടുക്കുമോ അത് മാമിന് പറ്റുന്ന അത്രയും നേരത്തെ എനിക്കൊന്ന് ചെയ്തു തരണം കാരണം എനിക്ക് ഈ മാസം അവസാനത്തെ ഇരുപത്തിരണ്ടാം തീയ്യതി എനിക്ക് ജോയിൻ ചെയ്യണം അതിൻ്റെ ലെറ്ററ് വന്നിട്ടുണ്ട് അപ്പം മാമിതൊന്നെനിക്ക് ചെയ്ത് തരണം